തോട്ടത്തിൽ നടാനുള്ള ചെടികളുടെ വിത്തുകൾ അല്ലെങ്കിൽ കൊമ്പുകൾ ഒക്കെ ഞങ്ങൾ കുറേയൊക്കെ അടുത്ത വീടുകളിൽ നിന്നും വാങ്ങാറുണ്ട് പിന്നെ വല്ല ഫാമുകളിലും ഒക്കെ പോകുമ്പോൾ വാങ്ങാറുണ്ട് ഫ്ലവർ ഷോ പൂപ്പൊലി എന്നിവയിലൊക്കെ പോയി വാങ്ങാറുണ്ട് പിന്നേ ഓൺലൈനിലായിട്ട് കുറേ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാറുണ്ട്